ഹലോ ഡോക്ടറല്ലേ ആ എനിക്ക് ചെറുതായിട്ട് നെഞ്ചുവേദന ഒക്കെ ഉണ്ടായിരുന്നു ആ അപ്പോൾ എന്താണെന്നറിയില്ല ഇന്നലെ രാത്രിത്തൊട്ടു തുടങ്ങിയതാണ് അപ്പം ഇതുവരെ മാറിയിട്ടില്ല ഇന്നലെ രാത്രി ഇടക്കിടയ്ക്ക് ഉണ്ടാവും പക്ഷെ ഇടയ്ക്ക് പെട്ടെന്ന് കുറയും വീണ്ടും ഇടക്കിടയ്ക്ക് വരും എന്താ സംഭവം എന്നറിയില്ല ഇടയ്ക്ക് ചെറുതായിട്ടൊരു നെഞ്ചെരിച്ചിലുണ്ട് പക്ഷെ ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നെഞ്ചെരിച്ചിൽ ഉള്ളത്

സമയത്തിന് ആ ഫുഡ് കഴിക്കാറുണ്ട് ആ കറക്ട് ഉച്ചയ്ക്ക് ചില സമയങ്ങളിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വർക്കിലായതുകൊണ്ട് കൂടുതലും വൈകുന്നേരം ആ ടൈമിലാണ് കഴിക്കാറ് ആ ആ സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദനയാണ് ഇടയ്ക്ക് രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് നെഞ്ചുവേദനയാണ് ആ ആ ഓക്കേ ഓക്കെ ആണല്ലേ ആ ഓക്കെ ഇപ്പോൾ വേറെന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ ചെയ്യേണ്ടിവരും അല്ലേ ഈ സി ജി എടുക്കണം ആ ആ ഓക്കെ ഓക്കെ അത് അവിടെ വന്നാൽ എടുക്കാൻ പറ്റുമോ അവിടെ വന്നാൽ എടുക്കാൻ പറ്റില്ലേയെന്ന്

ഓക്കേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാനിനി വേദന വരികയാണെങ്കിൽ ഞാൻ വന്നു കാണിക്കാം എന്നാൽ ഓക്കെ എന്നാൽ